ഹലോ മീഷോ കസ്റ്റമർ സർവീസ് സെൻറ്ററല്ലെ അപ്പം ഞാനൊരു ഒരാഴ്ച മുൻപ് ഒരു ബെഡ്ഷീറ്റ് നിങ്ങളുടെ ഹോം വെയർ ഇതിൽ നിന്ന് ഒര് ബെഡ്ഷീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ ഡേറ്റിനേക്കാളും ഒര് ടു ഡേയ്സ് ലേറ്റായിട്ടാണ് ഓൾറെഡി വന്നത് ഓക്കെ വന്ന് കഴിഞ്ഞപ്പോൾ അത് ഞാനൊട്ടും സ്റ്റാറ്റിസ്ഫീഡ് അല്ല ഞാൻ ആ പ്രൊഡക്റ്റായിട്ട് അത് ഞാ ഒര് കിങ് സൈസ് ബെഡ്ഷീറ്റും വിത്ത് ടു പില്ലോ കവറ് അങ്ങനെ അങ്ങനെന്തോ ആണ് ഞാൻ ഓർഡറ് ചെയ്തത് അപ്പോൾ അത് വന്ന് കഴിഞ്ഞപ്പോൾ തീരെ സ്റ്റാറ്റിസ്ഫൈഡ് ആയില്ല എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല മറ്റെ ഡിസ്പ്ലേയില് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോട്ടൺ ക്ലോത്തായിരിക്കുന്നാണ് പക്ഷെ അത് കൊണ്ട് വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അത് പോളിസ്റ്റർ ടൈപ്പ് അങ്ങനെ എന്തോ തുണിയാണ് പോളിത്തീൻ ടൈപ്പ് തുണിയായിരുന്നു അത് പിന്നെ ഡി ഡിസൈൻ കളറൊക്കെ സെയിമാണ് ബട്ട് ഡിസൈൻ ഡിസ്പ്ലേയില് കൊടുത്തിട്ടുണ്ടായതിനക്കാളും വേറൊര് ടൈപ്പ് ഡിസൈനായിരുന്നു അതിലുണ്ടായത് അപ്പം ഞാനൊര് എമർജൻസിയായിട്ടാണ് ഞാനത് വാങ്ങിച്ചത് ഇപ്പോൾ അതിപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല റിട്ടേൺ ചെയ്യാം റിട്ടേൺ ചെയ്ത് എക്സ്ചേഞ്ച് ഒന്നും എനിക്ക് വേണ്ട എനിക്കിപ്പം അതിൻ്റെ റീഫണ്ട് കിട്ടിയാൽ മതി ഇപ്പം എന്തായാലും എമർജൻസിയായിട്ടാണ് ഞാൻ ഓർഡറ് ചെയ്തത് ഇപ്പം എനിക്ക് വേറെ വാങ്ങിക്കാണ്ട് വയ്യ ഞാൻ ഓൺലൈനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി തന്നല്ല ഓൺലൈൻ പേയ്മെൻറ്റാരുന്നു എൻ അല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നിൽ ഞാൻ എനിക്ക് റീഫണ്ട് കിട്ടിയാൽ മതി ആ ഓക്കെ അപ്പം ഞാൻ എങ്ങനെയാണ് അത് കളക്ട് ചെയ്യാൻ എങ്ങനെയാണ് ആള് വരുമോ ഓക്കെ ആള് കോണ്ടാക്ട് ചെയ്യുമെന്നല്ലേ ആ ഓക്കെ അപ്പോൾ പൈസാ ആ ടൈമില് തന്നെ കിട്ടുവോ കാരണം ഇപ്പം ഞാൻ എമർജൻസി ആണെന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്കാ പൈസ കിട്ടിയാലാണ് ഇപ്പം എനിക്ക് വേറെ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുവുള്ളു ആ ഓക്കെ ആ ആ ഓക്കെ